രണ്ടു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ച് ലക്ഷത്തി ഇരുപത്തായ്യായിരം നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം